എൻ്റെ പ്രദേശത്തെ ഏറ്റവും നല്ല സ്ഥലമായിട്ട് തോന്നിയത് കുമരകമാണ് കുമരകം ഇപ്പം വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ഒക്കെ ധാരാളം എത്തിച്ചേരുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ ബാക്ക്വാട്ടേർസ് ഉണ്ട് ബോട്ടിങ് ഹൗസ് ബോട്ടിങ് ഹൗസ് ബോട്ടിങ് സ്റ്റേ ഉണ്ട് അവിടെനിന്ന് നമുക്ക് അതുവഴി ആലപ്പുഴക്ക് പോവാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്രഷ്വാട്ടർ ഫുഡ്സ് പ്രത്യേക പ്രത്യേക വെറൈറ്റി ഡിഷെസുകൾ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ വിനോദ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നത് കപ്പ മീൻ കറി പ്രത്യേകിച്ച് മെയിൻ ആയിട്ടും പിന്നെ കരിമീൻ പോലെയുള്ള ഫുഡ്സ് മെയിൻ ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്നത് നല്ല അടിപൊളി വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ് ഹൗസ് ബോട്ടിങ് യാത്ര നമുക്ക് വേമ്പനാട് കായലിൽക്കൂടെ നടന്ന് കുമരകം അതുവഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ നമുക്ക് മൊത്തം നല്ല ഭംഗി ആസ്വദിച്ച് ഒരു ഫുൾ ഡേ എടുക്കുവാണെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ അടിപൊളി ഹോട്ടൽസ് കാര്യങ്ങളെല്ലാം ഇപ്പം നിലവിൽ വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് മെയിന്റയിൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വിനോദ സഞ്ചാരത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഫോറിനേഴ്സിനെ നമുക്ക് കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു സ്ഥലമാണ് വാഗമൺ വാഗമണിലെ മൊട്ടക്കുന്ന് അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ് കാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇതൊക്കെ അടിപൊളി ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു പിന്ന ചില സ്ഥലങ്ങളിൽ പാസ് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ ഗവൺമെൻറ് ഏറ്റെടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്കും കാര്യങ്ങൾക്കും മെയിന്റൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ അങ്ങോട്ട് ആകർഷിക്കാനും കൂടുതൽ ആൾക്കാരെ എത്തിച്ചേരുവാനും സാധിക്കും എൻ്റെ അറിവിൽ എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം അങ്ങനെ ഒത്തിരി ദൂരെനിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പം വാഗമൺ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ സ്റ്റേ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നല്ല മൂടൽ മഞ്ഞ് കോട കാണുവാൻ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോവുകാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പോവാൻ അവർ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ലാത്തൊരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ അതു കഴിഞ്ഞാൽ പിന്നെ മൂന്നാറാണ് നമുക്ക് അറിയാമല്ലോ അപ്പം അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം വാഗമൺ അതുപോലെ തന്നെ വാഗമണിലോട്ട് പോവുന്ന റൂട്ടിൽ നമുക്ക് ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്നൊരു സ്പോട്ട് ഉണ്ട് അത് നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലമാണ് ഇപ്പം അങ്ങോട്ട് ഗവൺമെൻറ് പഞ്ചായത്ത് റോഡെല്ലാം അടിപൊളിയാക്കി ടാർ ചെയ്ത് നല്ല വ്യൂ പോയിന്റ് ആണ് സന്ധ്യ സമയങ്ങളിൽ നമുക്ക് പോകുവാണെന്നുണ്ടെങ്കിൽ ഈവെനിംഗ് നല്ല ക്ലൈമറ്റ് ആണ് നമുക്ക് ഒരുമാതിരിപ്പെട്ട കോട്ടയം ജില്ലയിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം കാണാൻ സാധിക്കും എന്നുവേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അതുപോലെ ഉയരത്തിലുള്ളൊരു സ്ഥലമാണ് മേളിൽ വരെ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ നമുക്ക് ഒരു അനുഭവം ആയിരിക്കും പുതിയ അതുകൊണ്ട് എനിക്ക് മെയിൻ ആയിട്ട് എൻ്റെ അടുത്ത് വിനോദസഞ്ചാരത്തിനു പറ്റിയ ഏരിയകളെന്ന് എനിക്ക് തോന്നിയത് ഈ മൂന്ന് സ്ഥലങ്ങളാണ്